ഹലോ ആ ആ അതെ ആ ആ അതിൽ ഉഴി ഉഴിച്ചിൽ നടത്തേണ്ടി വരും ചിലപ്പം ഇവിടെ കിടത്തി ചികിൽസിക്കേണ്ടി വരും എന്താണ് വന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ അതിന് നം നമ്മൾ ചുക്കുകാപ്പി ഉണ്ടാക്കി കുടിക്കുക പിന്നെ ചുക്ക് കുരുമുളക് പിന്നെ തുളസിയുടെ ഇല കൊത്തമല്ലി ശർക്കര അങ്ങനെയുള്ള ഏലക്കായ പച്ച മല്ലി അങ്ങനെ എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് കാപ്പി തിള നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം കാപ്പിപ്പൊടിയിട്ട് ഉപയോഗിക്കുക പിന്നെ ആവി പിടിക്കാം താരൻ പോവാനാണ് ചെമ്പരത്തി താളി ചീവയ്ക്കാപ്പൊടി അതൊക്കെ ഉപയോഗിച്ചിട്ട് ഡോക്ടർ പത്ത് മണി മുതൽ ഒരു മണി വരെയുണ്ടാവും ആ കിടത്തി പരിശോധന ഒക്കെ ഉണ്ട് രോഗീന്റെ കൂടെ ഒരാൾക്കേ നിൽക്കാൻ പറ്റൂ ഭക്ഷണങ്ങൾ പച്ചമരുന്നുകൾ കഴിക്കുമ്പം അതിനനുസരിച്ചുള്ള പത്യത്തിന് നിൽക്കേണ്ടി വരും ഇറച്ചിയും മീനും ഒന്നും പറ്റില്ല

നെയ്യ് ഉള്ള മീനുകളൊന്നും കഴിക്കരുത് മാംസങ്ങളൊന്നും കഴിക്കരുത് പിന്നെ പുളി എരുവ് അതൊക്കെ കുറയ്ക്കേണ്ടി വരും